വ്യായാമങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും എന്താ പറയുക ശരീരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യായാമങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത് വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ മസ്സിൽസിനും എന്താ പറയുക പിന്നെ നമ്മുടെ മസ്സിൽസും പാംസ് കാര്യങ്ങൾ അങ്ങനെ ഉള്ളവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യായാമങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ കയ്യൊക്കെ എന്താ പറയുക കൈക്കും കാലിനൊക്കെ നല്ല ഫ്ലെക്സിബിളായിട്ട് മൂവ്മെൻ്റൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വ്യായാമം കൈ എന്താ ചെയ്യുന്നതെന്ന് ആണ് ഞാൻ വച്ചിരിക്കുന്നത് എന്നാൽ യോഗ ചെയ്യുന്നതിലൂടെ നമുക്കെന്താ പറയുക ആന്തരികാവയവങ്ങൾക്കും നല്ല രീതിയ്ക്ക് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അതായത് ശ്വാസകോശം പിന്നെ ഹൃദയം എന്താ പറയുക അങ്ങനെയുള്ളവയ്ക്കൊക്കെ കൂടുതലായിട്ടും ഉപയോഗം എന്താ പറയുക നല്ലതാണു യോഗപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് പൊതുവെ ഞാൻ കണ്ടിട്ട് എൻ്റെ അറിവിലുള്ളത്